ആ ടോപ്ഫോം റെസ്റ്റോറൻ്റെല്ലേ ആ ഈ ചിക്കൻ ഐറ്റം എന്താണ് ഉള്ളത് ബിരിയാണിയാണോ ബിരിയാണി ഐറ്റം എന്ത് ആ ആ

എന്നാൽ മറ്റേ നെയ്ചോറാണെങ്കിൽ ചിക്കൻ നോക്കിയാൽ മതി പോയി ആ ആ അങ്ങോട്ട് വരാനോ ആ അവിടെ ആ ഇല്ല കുറച്ച് പേരുണ്ട് ചിക്കൻ ആണോ ഒരു പത്ത് പതിനഞ്ച് ആ പത്ത് പതിനഞ്ച് പേരുണ്ടാകും ആ അവിടെ അതിനുള്ള സൗകര്യം എല്ലാം ഉണ്ടാവൂല്ലേ ആ ആ ആ ചിക്ക ചിക്കൻ ആയിട്ട് മതി ആ വിളിച്ചാൽ മതി ആ ആ അത് നോക്കീട്ട് ഓർഡർ പറയാം അത് ആ അതോ ഒരാഴ്ച മുൻപ് ബുക്ക് ചെയ്യണോ ഒരാഴ്ച മുൻപായിട്ട് പറയണോ ആ ആ ആ പറഞ്ഞാൽ മതിയല്ലേ ആ ആ തലേ ദിവസം പറഞ്ഞാൽ മതിയല്ലേ ആയിക്കോട്ടെ എന്നാൽ ആ എന്നിട്ട് അതൊന്ന് വാട്സ്ആപ്പിലൊന്ന് വിട്ടാൽ മതി എന്നാൽ ഞാൻ ഏതാന്നൊന്ന് വേണ്ടേന്ന് വച്ചിട്ടേ അതെ ഞാൻ പറയാമത് ആ ആ വരുന്ന ദിവസം ഞാൻ പറയാം

ആയിക്കോട്ടെ